അങ്ങനെ തുന്നൽ പഠിപ്പിക്കുന്ന കുറേ യൂട്യൂബ് ചാനലുകളൊക്കെ ഉണ്ട് അങ്ങനെ എല്ലാ ഇഷ്ടപ്പെട്ട ചാനൽ പ്രത്യേകിച്ച് പറയാനുള്ള ചാനലുകളൊന്നും ഇല്ല എല്ലാ ചാനലുകളും നല്ല രീതിയിൽ പറഞ്ഞു തരുന്ന ചാനലുകളൊക്കെ ഞാൻ നോക്കാറുണ്ട് അവർ പറഞ്ഞു തരുന്നത് ചിലപ്പോൾ നല്ല നല്ല പുതിയ പുതിയ ഡിസൈനിങ്ങൊക്കെ വരുന്ന സമയത്ത് അതുപയോഗിച്ച് അതു നോക്കി ചെയ്യാറുണ്ട് നല്ല ഇപ്പോൾ എന്താണ് അതിലെന്തെങ്കിലും വർക്ക് ചെയ്യാനാണെങ്കിൽ ഗ്ലാസ് വർക്കാണെങ്കിലും മുത്തുകൾ വച്ചു പിടിപ്പിക്കാനൊക്കെ അവർ പറഞ്ഞു തരുമ്പോൾ അതിനനുസരിച്ച് ചെയ്തു നോക്കാറുണ്ട് അതുപോലെ ഞാൻ ഈ ചെയ്തു നോക്കിയാതൊക്കെ ഞാൻ പുറത്തൊള്ളക്കി പുറത്ത് ഉള്ള അവർക്ക് കൊടുക്കും അപ്പോൾ അവർ വീണ്ടും വീണ്ടും എന്നോടത് ചെയ്തു തരാൻ വേണ്ടിയിട്ട് പറയാറുണ്ട് അപ്പോൾ അങ്ങനെയാണ് ശരിക്കും ആ എൻ്റെ കഴിവ് ഞാൻ സമൂഹത്തിൽ പരസ്യപ്പെടുത്തുന്നത് ചിലപ്പോൾ ഞാനിങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് വാട്സ്ആപ്പിൽ ഒക്കെ സ്റ്റാറ്റസ് ആയിട്ട് ഇടാറുണ്ട് അപ്പോൾ അതെല്ലാവരും കാണും അതു കണ്ടിട്ട് എല്ലാവരും വന്നിട്ട് എന്ത് ചെയ്യാറുണ്ട് ചോദിക്കാറുണ്ട് ചെയ്ത് തരുമോയെന്നൊക്കെ അങ്ങനെ ചെയ്തു കൊടുക്കുകയാണ് സാധാരണ ചെയ്യാറ്